ഞാൻ ആദ്യമായിട്ട് നീന്താൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസിലാണ് ആറാം ക്ലാസില് വെക്കേഷൻ സമയത്ത് ഈ ഏട്ടന്മാരൊക്കെ ഇങ്ങനെ കുറെ നീന്തുന്നത് കണ്ടപ്പോൾ ഒരു ആവേശം കേറിയിട്ട് വെറുതെ വെള്ളത്തിൽ ചാടി അന്ന് കുറെ വെള്ളമൊക്കെ കുടിച്ചു പിന്നീടാണ് ഏട്ടന്മാര് പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല നിനക്ക് വേണമെങ്കിൽ പിന്നെ റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ എന്നാൽ നാളെ പഠിപ്പിച്ച് തരുമോ ചോദിച്ചു അങ്ങനെ ഒരു പിന്നെ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ട് ഏട്ടന്മാര് അവിടെ ചെറിയ ഒരു ഇതുപോലെ കുറെ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുന്നത് ഒക്കെ ഉണ്ട് അപ്പോ അവിടേക്ക് പോയി അപ്പോൾ അവര് ആദ്യം നമ്മൾ ഇപ്പോൾ എങ്ങനെ തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയറിൻ്റെ ഒരു കാറ്റ് ട്യൂബില് ഫുള്ള് കാറ്റടിച്ചിട്ട് അതില് ആണ് ആദ്യം നിൽക്കുക എന്നിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ അതിൻറെ മുകളിൽ കയറി കിടന്ന് കയ്യ് ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിച്ച് അടിച്ച് അടിച്ച് കുറേനേരം നമുക്ക് വെള്ളത്തില് തനിയെ കിടക്കുക അല്ലെങ്കിൽ നീന്താൻ പറ്റണ ഒരു സ്റ്റേജിലേക്ക് വെള്ളത്തില് നമുക്ക് സ്വയം നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ആദ്യം നമ്മളെ എത്തിക്കും പിന്നെയാണ് നമുക്ക് ഓരോ രീതി അവര് പഠിപ്പിച്ചു തരുക കൈ ഇങ്ങനെ എങ്ങനെയാണ് കയ്യടിക്കേണ്ടത് പിന്നെ കാൽ എങ്ങനെ കൈ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാല് ബാക്കിലേക്ക് പിന്നെ ശ്വാസം പിടിച്ച് പിന്നെ വെള്ളത്തില് എങ്ങനെയാണ് നമുക്ക് ശ്വാസം പിടിച്ച് കിടക്കേണ്ടത് വെള്ളത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു വേറൊരു ഉപകരണത്തിൻ്റെയും ഒന്നിൻ്റെയും സഹായമില്ലാണ്ട് എങ്ങനെയാണ് വെള്ളത്തിൽ നിൽക്കേണ്ടത് ജസ്റ്റ് കാൽ മാത്രം എങ്ങനെ അടിച്ചടിച്ച് നിൽക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പഠിപ്പിച്ചു തന്നു പിന്നെപ്പിന്നെ നമ്മള് കുറച്ചു കുറച്ച് ആയിട്ട് നീന്താൻ തുടങ്ങി ആദ്യം കുറച്ചു ദൂരം നീന്തും പിന്നെ ഡെയിലി അങ്ങനെ നീന്തി നീന്തി ഒരു അത്യാവശ്യം ഒരു ആ ആ ഒരു നാലഞ്ച് നാലഞ്ച് മാസം കൊണ്ട് ഏകദേശം അത്യാവശ്യം നന്നായിട്ട് നീന്താൻ ഒക്കെ പഠിച്ചു പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പുഴയിലും കാര്യങ്ങളിലൊക്കെ നീന്താനുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം പേടി എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമായിരുന്നു വെള്ളം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടം ഉള്ള ഒരാളായിരുന്നു അങ്ങനെ പക്ഷേ അതിനുള്ള അവസരവും കാര്യങ്ങളൊക്കെ വന്നത് ഈ ഇങ്ങനെ ആറാം ക്ലാസിലൊക്കെ എത്തിയപ്പോഴാണ് അതിന് മുമ്പ് ഒന്നും അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ പുറത്തു പോവുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുവരെ എനിക്കങ്ങനെ സമയവും കാര്യങ്ങളും പിന്നെ സമയം കിട്ടിയപ്പോൾ പിന്നെ നമ്മള് പിന്നെ പിന്നെ കുളത്തിലും പുഴയിലും ഒക്കെ പോയി കുളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ വെള്ളം വെള്ളം ഇപ്പോഴും അപ്പോഴും ഒരേ പോലെ തന്നെ നല്ല ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ കുറെ നേരം ഇപ്പോൾ എന്താ പറയുക സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് പുഴയിൽ പോയിരിക്കുക ഇവിടെ അടുത്ത് പുഴയുണ്ട് അപ്പൊ അവിടെ പോയിരിക്കും അവിടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ വെള്ളത്തിൽ കളിക്കുക അല്ലെങ്കിൽ മീൻ പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെയാണ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നീന്തൽ പഠിപ്പിച്ച ആളെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ രണ്ടുമൂന്ന് ഏട്ടന്മാർ ഉണ്ട് അവരിപ്പോൾ അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയാൻ പറ്റില്ല അവിടെ കുറെ ഏട്ടന്മാരും ഉണ്ടായിരുന്നു അവരിപ്പോൾ എല്ലാവരും പഠിക്കണ അല്ലെങ്കിൽ പഠിപ്പിക്കണ കൂട്ടത്തിൽ ഇങ്ങനെ നമുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരു രണ്ടുമൂന്നു ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം ഓരോ ആൾക്കാരാണ് പറഞ്ഞുതരിക അപ്പോൾ അങ്ങനെ ഒരാളെ നമുക്ക് അങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ ഒന്നുമില്ല പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ഒരു ഏട്ടൻ ഉണ്ട് ഈ രവിയേട്ടൻ പറയും ആള് ആണ് ആദ്യം എന്നെ നീന്താ നീന്താൻ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് രവിയേട്ടൻ ആണ് ആളും അത്യാവശ്യം പക്ഷെ ആള് അങ്ങനെ ആ വേറെ ആള് പ്രൊഫഷണൽ ആയിട്ട് ഒന്നും നീന്തിയിട്ട് ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ നാട്ടിലൊക്കെ അത്യാവശ്യം നീന്തലും കാര്യങ്ങളൊക്കെ ആ പിന്നെ മത്സരങ്ങൾ അവിടെ അങ്ങനെ മത്സരങ്ങൾ ചില സമയത്തൊക്കെ നടക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആളാണ് എനിക്ക് നീന്തൽ പഠിപ്പിച്ച് തന്ന ഒരാള് എന്ന് വേണമെങ്കിൽ രീതിയിൽ പറയാൻ പറ്റും